നമ്മുടെ ഗ്രാമത്തിൽ ഓരോ ജാതിക്ക് അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും ഹിന്ദൂസിനും ക്രിസ്ത്യന്സിനും മുസ്ലീംസിനും ഒക്കെ ഓരോ ഓരോ രീതിയാണ് ഹിന്ദൂസ് ആണെങ്കിൽ അവർ ദഹിപ്പിക്കാണ് ചെയ്യുന്നത് അത് വീട്ടിലാവാം അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ട് പോയി ദഹിപ്പിക്കാണ് ചെയ്യുന്നത് ഇപ്പം മുസ്ലീംസും ക്രിസ്ത്യന്സും ആണെങ്കിൽ പള്ളിയിൽ അടക്കുകാണ് ചെയ്യുന്നത് ചില ക്രിസ്ത്യന്സ് വീട്ടില് തന്നെ ശവകല്ലറ ഉണ്ടാക്കിട്ട് അവിടെ അടക്കം ചെയ്യാണ് ചെയ്യുന്നത്